ആഹ് ഹലോ ആഹ് എന്നാ ഉണ്ടെടാ കുറേ ആയല്ലോ കണ്ടിട്ട് എവിടെ എന്നാ പരിപാടി ഇപ്പം

നീ കോളേജ്ലക്കെ കേറിയോ നീ പ്ലസ് ടു പൊട്ടിയ മച്ചാനെ നമ്മളിപ്പോൾ ബിസ്സിനെസ്സ് ആണ് കൊച്ചിയിൽ ഏ പിന്നെ മച്ചാനെ അതല്ലേ ഇപ്പം എനിക്കതാ നല്ല മാർഗം എന്ന് തോന്നി ശാന്തിയുടെ മാർഗ്ഗമല്ലേ ആഹ് മച്ചാൻ പറ എന്ന വിളിച്ചത് റൂമാ റൂം എന്നാത്തിന് റൂമോ ഓ ഹോമ് സ്റ്റേ മച്ചാനെ നമുക്കുതന്നെ ഉണ്ടല്ലോ പിന്നെന്തിനാ പരിചയം വയ്ക്കുന്നത് മച്ചാൻ പീ ജിയല്ലേ ഉദ്ദേശിച്ചെ മറ്റേ നിൽക്കുന്ന ഹോസ്റ്റൽ സെറ്റപ്പ് ആ മച്ചാനെ ഇവിട കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് തോന്നുമ്പോൾ പോകാം തോന്നുമ്പോൾ വരാൻ ഒന്നും പറ്റത്തില്ല കാര്യം ഇത് ഇവിടെ അനുസരിച്ച് നിൽക്കാണേൽ കുഴപ്പമില്ല ഞാൻ മച്ചാന് ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്യാം അല്ലേൽ പറഞ്ഞാൽ മതി ഇപ്പോൾ ഇപ്പം പറയാം എന്ന റെൻ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ മാസം ഫൈവ് തൗസൻഡ് വിത്ത് ഫുഡ് ആണ് വരുന്നത് മൂന്ന് നേരത്തെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നോൺ വെജ്ജ് കാണും എടാ ഇങ്ങനെ വരുന്നതെന്നു പറഞ്ഞാൽ ഫൈവ് കെ വരും ഒരു മന്ത് വരുമ്പത്തേന് അതിനകത്ത് ഫുഡ് കൂടി ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത് നോൺവെജ് മാത്രം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും

അത് ഞാൻ സെറ്റ് ചെയ്യാം അത് ഞാൻ അത് ഞാൻ ഡീല് ചെയ്യാം അത് ഞാൻ ഡീല് ചെയ്യാം വേറെ പ്രശ്നം ഒന്നും ഇല്ല അത് ഞാൻ സെറ്റ് ചെയ്തോളാം നീ എന്നാ എറണാകുളത്ത് എന്നാ പരിപാടി ആഹ് ആഹ് എടാ നീ ഒരാൾ ഉള്ളോ അതോ അല്ല കാര്യം ഒരാളുതന്നെ നിൽക്കുവാണെങ്കിൽ നിനക്ക് മുതലാവത്തില്ലട നീ ആളെ കൂട്ടുവാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക വേറെ സീൻ ഒന്നും ഇല്ല എത്ര പേരാണ് നീയൊരു മൂ എടാ ഒരു മൂന്ന് പേരൊക്കെയാണെങ്കിൽ നമുക്കൊരു റേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിനക്കാണെങ്കിലും ലാഭമാ മൂന്നുപേർക്ക് നിൽക്കാൻ പറ്റുന്ന റൂംസ് ഒക്കെയുണ്ട് മൂന്ന് പേരിൽ കൂടുതൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എക്സ്ട്രാ ബെഡ് ഇടാം ആതിൻ്റെ വില്ല സെറ്റപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മച്ചാനെ ഈ റേറ്റ് അല്ല പെർ ഹെഡ് വരുമ്പം എല്ലാവർക്കും ഫൈവ് കെ വരും മച്ചാൻ നമ്മുടെ ആളായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ചെറിയ ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ താഴ ഇതിരിപ്പുണ്ട് മാനേജർ ഇരിപ്പുണ്ട് മറ്റേ ജന്നാ എന്ന് പറഞ്ഞ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അല്ല അതല്ല ഞാൻ പറഞ്ഞ അതല്ല ഞാൻ പറഞ്ഞ തിരക്കാണേൽ അവരെ വിളിച്ചാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് കാര്യം അവർ അവർ റൂംസ് എല്ലാം കാണിച്ച എടാ പോവാണെങ്കിൽ ഇന്ന് കയറാൻ ആണോ അതോ ഓ ശരി ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം മാനേജർ ഇപ്പോൾ കാണില്ല അവിടെ കുറച്ച് മറ്റേ തൂക്കാനും തുടക്കാനും ഒക്കെയുണ്ട് അപ്പത്തേന് അതൊക്കെ ആയിട്ട് കുറച്ചു ലൊക്കേഷൻ വരുമ്പത്തേന് നമ്മൾ കൊച്ചിയിൽ ഇത് വരും മറ്റേ പാലത്തിൻ്റെ അടിയിൽ വരും എടാ കടവന്ത്രക്കും കല്ലിനും ഇടയ്ക്ക് ആഹ് അവിടെയൊക്കെയായിട്ട്

ആഹ് എടാ എല്ലാ ഫർണിച്ചറും സാധനങ്ങളൊക്കെ സെറ്റ് ആണ് പിന്നെ എടാ വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂൾസ് വച്ച് നോക്കുവാണെങ്കിൽ ആൽക്കഹോളിസം സ്മോക്കിങ് ഒന്നും പറ്റത്തില്ല അത് ഇവിടുത്തെ എല്ലാ ഹോസ്റ്റലിലും ഉള്ള കാര്യമാണ് ഇപ്പം കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ആക്ഷൻ എടുക്കേണ്ടി ഒന്നുകിൽ നിങ്ങൾ ഇറങ്ങേണ്ടി വരും മനസ്സിലായില്ലേ കാര്യം ഇവിടെ എല്ലാ ഉള്ളതാ അറിയാമല്ലോ ബാച്ചിലേഴ്സിന് സാധാരണ അങ്ങനെ ഇവിടെ കൊടുക്കാറില്ലാത്തതാണ് പിന്നെ നീ എൻറെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് പിന്നെ തരുന്നത് കാര്യം ഇവിടെ കാര്യം ഇവിടെ പിള്ളാരക്കെ വന്നിട്ട് ഭയങ്കര സീനൊക്കെ ആയി അതുകൊണ്ട് കുറച്ചുനാൾ മുന്നെ അതുകൊണ്ട് നമ്മളിപ്പം എല്ലാ പരിപാടിയും നിർത്തിച്ചു ആഹ് മച്ചാനെ എനിക്കറിയാമല്ലോ മച്ചാൻ ക്ലീൻ ആണെന്ന് അറിയാം അല്ല കൂട്ടത്തിൽ വരുന്നവർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ ആഹ് അത് നോക്കിയാൽ മതി അത് നോക്കിയാൽ മതി വേറെ പ്രശ്നമൊന്നും ഇല്ല കാര്യം നല്ല ഫുഡ് ഹോംലി ഫുഡ് വേറെ സീൻ ഒന്നും ഇല്ല എടാ നമ്മൾ പക്കാ വെള്ളമാടാ ഒരു വിഷയവുമില്ല കാര്യം വർഷങ്ങളോളം ഇവിടെ താമസിക്കുന്ന ഫാമിലിസ് ഒക്കെയുണ്ട് എടാ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫാമിലിസും കൂടെ താമസിക്കുന്ന കാര്യം അപ്പം രാത്രി ഒക്കെ ഇപ്പം അങ്ങനെ ഒച്ചപ്പാടും ബഹളം അറിയാമല്ലോ മച്ചാൻ ആയാലും മര്യാദ അറിയാമല്ലോ ആ അങ്ങനെ വരുവാണെൽ കുഴപ്പമില്ല ആഹ് എടാ ഞാൻ ഇൻകേസ് എന്തെങ്കിലും ഇതുണ്ടേൽ നമ്മുടെ താഴെ മാനേജർ ഉണ്ട് മാനേജറെ കോൺടാക്റ്റ് ചെയ്യ് ഇപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ല പുള്ളിക്കാരി തൂക്കാനും തുടക്കാനും വല്ലം പോയതായിരിക്കും ആഹ് ആ ഓക്കേ